മലയാള ഭാഷ കാലക്രമേണ ഒരുപാട് മാറ്റങ്ങള് വന്നൊരു ഭാഷയാണ് മുമ്പ് നമ്മള് പൊതുവെ അച്ചടി ഭാഷ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയാണ് കൂടുതലായിട്ടുള്ള ആൾക്കാര് സംസാരിച്ചിട്ടിണ്ടായിരുന്നത് ഇപ്പൊൾ നമ്മുടെ സംസ്കാരവും ജോലിയും അങ്ങനുള്ള കുറെയധികം പിന്നെ നമ്മുടെ സ്ഥാ നമ്മുടെ സ്ഥലവും അതുപോലെ ജില്ലയും ഒക്കെ നോക്കണംന്നു പറയുമ്പോൾ പല ജില്ലകളിലും പല ഭാഷാരീതിയാണ് മലയാള ഭാഷയില് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പല ഭാഷാരീതിയില് പല ഇപ്പൊ ഒരു വാക്കിന് തന്നെ പല അർത്ഥവും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിലൊരു എന്താ പറയുക ആ സ്പീടായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയും കാര്യങ്ങളൊക്കെ മാറ്റം വരും പിന്നെ നമ്മടെ ഭാഷാ രീതിയില് വന്ന വ്യത്യാസങ്ങള് അങ്ങനെ നമുക്ക് കുറെ അധികം മാറ്റങ്ങളിപ്പോൾ എന്താ പറയുക മ മലയാള രീതിക്ക് മലയാള ഭാഷ ഇപ്പം ചിലര് മ് മംഗ്ലീഷ് അത് ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊൾ അങ്ങനെ പല രീതിയിലുള്ള മാറ്റമാണിപ്പോൾ നമ്മുടെ മലയാള ഭാഷയില് നമക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊൾ നമ്മുടെ സാധാ മലയാളം അതായത് സംസാരിക്കുന്ന മലയാള ഭാഷ നമുക്ക് അച്ചടി ഭാഷ വെച്ച് നോക്കുമ്പൊ കുറച്ചും കൂടെ എളുപ്പമാണ് പക്ഷെ അച്ചടി ഭാഷ നമുക്ക് അങ്ങനെ പെട്ടന്നൊരാൾക്ക് സംസാരിക്കുവാനൊ അല്ലെങ്കിൽ അതില് കൂടുതലായിട്ട് എഴുതാനോ വായിക്കാനോ ഒന്നും പറ്റില്ല അതിന് വെച്ച് നമ്മുടെ മലയാളം ഇപ്പോൾ നമ്മള് സാധാ ഉപയോഗിക്കുന്ന ഭാഷയാണെന്ന് പറയുമ്പോൾ നമുക്കതിൽ കൂടുതലായിട്ട് സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും